ആ ഹലോ എന്താ വിളിച്ചിരുന്നത് ഞാൻ ഓഫീസിൽ അത്യാവശ്യ വർക്ക് ആയത് കൊണ്ട് അതിൻ്റെ തിരക്കിലായിപ്പോയി അതുകൊണ്ടാണ് അറിയാമല്ലോ ഞാൻ ഓഫീസില് ജോലി ചെയ്യുന്നത് കൊണ്ട് എനിക്ക് അതിൻ്റെ തിരക്കുണ്ടാവും അതുകൊണ്ട് മാത്രമാണ് കഴിച്ചായിരുന്നോ ആ എന്തിനാ വിളിച്ചത് എന്താ അത് ഞാൻ എന്തായാലും ഓഫീസില് വർക്ക് ചെയ്യുന്ന ഒരാളായത് കൊണ്ട് ഇപ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ കൂട്ടുകാർക്ക് സംശയം ഉള്ള കാര്യങ്ങളുണ്ടാവും നൈറ്റ് ഡ്യൂട്ടിക്ക് ഇരിക്കുന്നവരും ഉണ്ട് അവർ വിളിക്കുന്ന സമയം ഈ സമയം ആണല്ലോ അതുകൊണ്ടാണ് അതല്ലാതെ അല്ലാതെ വേറെ ആര് വിളിക്കാനാ ആ അതിനെന്താ ലേഡീസിന് വർക്ക് ചെയ്യാൻ പാടില്ലേ അവരും രാത്രി ജോലി ചെയ്യുന്നവരുണ്ട് ഓഫീസില് നമ്മൾ ഒരു സ്റ്റാഫ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഒരുപാട് പേർ ഉണ്ടാവുമല്ലോ അപ്പോൾ അവർക്ക് സംശയം തോന്നി കഴിഞ്ഞാൽ അവർ നമ്മളെ വിളിച്ച് ചോദിക്കും ആ അതിന് ഇതൊരു അതൊര് ഇതായിട്ട് കാണരുത് പ്രിയേ സ്വാഭാവികായിട്ടും എൻ്റെ കൂടെ കിടക്കുന്ന ആൾക്ക് ഇപ്പോൾ ഉറക്ക ശല്യം ഉണ്ടാവരുതല്ലോ ഞാൻ കാരണം ഡിസ്റ്റർബെൻസ് ആകരുത് എന്നുള്ള രീതിയിലാണ് ഞാൻ ഫോണും കൊണ്ട് പുറത്ത് പോവുന്നത് അതിന് ഇങ്ങനെ ഈ രീതിയിലൊക്കെ ചിന്തിച്ചുകഴിഞ്ഞാൽ ഇത് തെറ്റല്ലേ ഒരു ഭാര്യ എന്ന നിലയിൽ ഭർത്താവിനെ സംശയിക്കുന്നത് ഒരു വലിയ തെറ്റാണ് ഇത് പിന്നെ സംശയം അല്ലെങ്കിൽ പിന്നെ എന്താണിത് ഇല്ല ഇല്ല ഇത് ക്ലിയർ ചെയ്തിട്ട് പോയാൽമതി അത് വെറുതെ കണ്ടെന്നും പറഞ്ഞ് ഇങ്ങനെ ചോദിക്കേണ്ട ആവശ്യം ഇല്ലല്ലോ അതിപ്പോൾ അങ്ങനെ കണ്ടെങ്കിൽ ആ കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് എൻ്റെ ഫോണ് എടുത്ത് പരിശോധിച്ചത് അപ്പം ഹലോ ഒന്നും പറയാനില്ലേ ആ അതാണ് സംസാരിച്ച സമയം വരെ നോക്കണമെങ്കിൽ അതിലെന്തോ പന്തികേടുണ്ടല്ലോ നിസ്സാരം കോളുകളുടെ പേരിൽ ഇങ്ങനെ സംശയിക്കുന്നത് ശരിയല്ല ഭയങ്കര മോശപ്പെട്ട ഒരു കാര്യമാണ് പ്രത്യേകിച്ച് അതിപ്പോൾ നല്ല കാര്യം ആയാലും അല്ലാത്ത കാര്യം ആയാലും മറ്റുള്ളവരുടെ ഇപ്പോൾ ഒരാളുടെ പ്രൈവസീല് അയാളുടെ പെർമിഷൻ ഇല്ലാതെ ഇടപെടുന്നത് തെറ്റല്ലേ നമ്മൾ എന്തായാലും രണ്ട് ഇൻഡിവിജ്വല് അല്ലേ അപ്പോൾ ഇയാൾ രാത്രി ഇയാൾ വേറെ ആരും വിളിക്കുന്നില്ല ഇല്ലെന്ന് എന്താണ് ഉറപ്പ് അതാണ് ആ പ്രൈവസീല് കയറി ഇടപെടാൻ ഉള്ള മാന്യത ഇടപെടാതിരിക്കാനുള്ള മാന്യത ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ ആ മാന്യത നിങ്ങളും കാണിക്കേണ്ടേ

എന്നിരുന്നാലും എൻ്റെ ഫോൺ എടുക്കുമ്പോൾ എന്നോട് ചോദിക്കേണ്ടേ അല്ലെങ്കിൽ ആ സമയത്ത് ചോദിക്കുക അതെന്താ ആ സമയത്ത് ഉണർന്ന് കിടക്കുകയാണെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ആ സമയത്ത് ചോദിക്കാത്തത് രണ്ട് ഇത് മൂന്ന് രണ്ട് മൂന്ന് ദിവസമായിട്ട് നോട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു എങ്കിൽ പിന്നെ ആ സമയത്ത് ചോദിക്കാത്തത് എന്താ ഇത്രയും ദിവസം വച്ചുകൊണ്ട് ഇരിക്കുന്നത് ഇത് പിന്നെ സംശയം അല്ലാതെ ഇതിനെ പിന്നെ ഞാൻ എന്ത് എന്ന് പറയണം ഹലോ ഉത്തരം മുട്ടിയോ ഇന്ന് രാവിലെ നോക്കിയതാണോ ആ അപ്പോൾ ശരി കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ ഇനി ആവശ്യം ഇല്ലാതെ ഇങ്ങനെയുള്ള സംശയങ്ങളുടെ സംശയത്തിൻ്റെ പേരിലൊന്നും ഇത് ചില കാര്യങ്ങൾ ഇങ്ങനെ തെറ്റായ രീതിയിൽ തീരുമാനങ്ങൾ എടുക്കരുത് ആ ഇന്ന് തെറ്റായ തീരുമാനത്തിൽ കടക്കുന്നതിന് മുൻപ് അതിന് മുന്നോടിയായിട്ടാണ് പറഞ്ഞത് ഓക്കെ ശരി എന്നാൽ